ഹലോ കേൾക്കാമോ സാർ ആ ഞാൻ ഇപ്പം നിങ്ങളുടെ റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് ഓഡർ ചെയ്ത ആളാണ് എൻ്റെ പേര് ജാസ്മിൻ എന്നാണ് എനിക്ക് ലഭിച്ച ഫുഡ് ആണെങ്കിൽ പഴയതായിരുന്നു കേട്ടോ അത് ഭയങ്കര സ്മെല്ല് തന്നെ ആയിരുന്നു അത് ഓപ്പൺ ചെയ്തപ്പോഴേ എനിക്ക് കഴിക്കാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഡെലിവറി ബോയിയെ വിളിച്ചിട്ട് ആണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല നിങ്ങൾ എന്തുവാണ് ഈ കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഫുഡിനെപ്പറ്റി എന്ത് മോശായിട്ട് എങ്ങനെ സംസാരിക്കണമെന്നു പോലും എനിക്കറിയാൻ വയ്യ അത്ര വൃത്തിഹീനമായ ഫുഡാണ് കൊണ്ടു തന്നത് ഞാൻ പേയ്മെൻ്റ് ചെയ്തു കഴിഞ്ഞ് എനിക്ക് ഫുഡ്കൊണ്ട് തന്നപ്പം ഇത്രയും മോശമായൊരു രീതിയിൽ അത് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം ഇത് എന്ത് മോശമായ പരിപാടിയാണ് ചെയ്തത് എനിക്ക് ആഹാരം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ടൈം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഓഡർ ചെയ്തത്

നിങ്ങളുടെ ഈ ഈ വൃത്തിയില്ലാത്ത ഈ ഫുഡിനെ പറ്റി ഞാൻ ഇപ്പോൾ എന്തുവാന്നാ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ പോവാ ഞാൻ ഇത് കാണിക്കും നിങ്ങളുടെ റെസ്റ്റോൻ്റ് പൂട്ടാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ഇപ്പം തന്നെ ചെയ്യും കാരണം ഇത് നിങ്ങള് ഇന്നാളും എനിക്ക് ഇതേ പോലെ ഒരു അനുഭവം ഉണ്ടായി അന്ന് ഞാൻ നിങ്ങളെ വാർൺ ചെയ്തതായിരുന്നു നിങ്ങൾ അത് കേട്ടില്ല നിങ്ങൾ ഇപ്പം ഇത് എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ഡെലിവറി ബോയ് ആണെങ്കിൽ കൃത്യസമയത്ത് ഫുഡ് കൊണ്ട് തരത്തും ഇല്ല തന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വൃത്തിയില്ലാത്ത മോശമായിട്ടുള്ള ഫുഡ് ഈ ചീത്തയായ ഫുഡ് മനുഷ്യർക്ക് കഴിക്കാൻ ഒക്കത്തില്ല എന്നുള്ള കാര്യം അറിയാമോ അത് ഈ ഇപ്പോൾ അടുപ്പിച്ചാണെങ്കിൽ ഈ ഹോട്ടലിലെ ഫുഡ് കഴിക്കുന്നവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ അവിടെ ഇരുന്ന് ആ കിച്ചണിലേക്ക് ഒന്ന് ചെല്ല് അവിടെ റെസ്റ്റോറൻ്റിൽ ഒരു ഓഫീസ് പോലെ ഇട്ട് കൊണ്ട് അവിടെ ഇരിക്കാതെ നിങ്ങൾ ആ കിച്ചണിലേക്കൊന്ന് ചെല്ലൂ അവിടത്തെ ഫുഡ് ഉണ്ടാക്കുന്നവർ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധീര് ഞാൻ ഇത് പരാതിപ്പെടും എനിക്ക് എൻ്റെ ആഹാരം സമയത്തിന് കഴിക്കാൻ പറ്റിയതല്ല കഴിക്കാൻ പറ്റിയതും ഇല്ല എൻ്റെ കയ്യിലെ പൈസയും പോയി ഞാൻ ഇത് പരാതിപ്പെടും ഡെലിവറി ബോയിയെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവനെ ആദ്യം തന്നെ വിളിച്ചതാണ് അവൻ എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല മനപ്പൂർവം എടുക്കാത്തതാണ് കാരണം അവർക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പം തന്നെ ഫുഡ് കമ്മീഷനെ അറിയിക്കാൻ പോവുകയാണ് ഞാൻ മാധ്യമങ്ങളെ അറിയിക്കും നിങ്ങളുടെ ഹോട്ടലിനെ പറ്റി ഞാൻ പരാതിപ്പെടും